ട്രക്കിങ്ങ് സ്ഥലങ്ങളിൽ ഇപ്പോൾ മുമ്പത്തേക്കാൾ മാലിന്യ സാ സ്ഥ വസ്തുക്കൾ വളരെയധികം കൂടിവരുന്നുണ്ട് ഉഡാ ഉദാഹരണത്തിന് ട്രക്കിങ്ങിന് പോവുന്ന ആളുകൾ കൊണ്ടുപോവുന്ന ഭക്ഷണ സാമഗ്രികളും പ്ലാസ്റ്റിക് പൊതിഞ്ഞുകൊണ്ട് പോവുന്ന ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വെള്ളകുപ്പികളൊക്കെ അവിടെത്തന്നെ ഉപേക്ഷിച്ച് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് പലർക്കും ഇത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള അവബോധമാണ് ഇതിൻ്റെ കാരണം

ഈ പ്ലാസ്റ്റിക് തുടങ്ങിയ മറ്റ് സ് മാലിന്യവസ്തുക്കൾ ആരും കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അപ്പോൾ പരിസരം ട്രക്കിങ്ങ് സ്ഥലത്തെ പ്രകൃതി നമുക്ക് നശിക്കാതെ സൂക്ഷിക്കാൻ പറ്റും അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ട്രക്കിങ്ങിന് പോകുന്ന ആളുകൾക്ക് ഒരു ഗൈഡ് പോകുന്നതിന് മുമ്പായിട്ട് ട്രക്കിങ്ങ് സ്ഥലത്ത് പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു പരിശീലനവും മറ്റ് കാര്യങ്ങളും നൽകികഴിഞ്ഞാൽ ട്രക്കിങ്ങ് സ്ഥലം മാലിന്യമാക്കാതെ നി നി നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് ഒന്നുരണ്ട് എക്കളോജിക്കൽ പരിസ്ഥിതി പ്രദേശങ്ങളിൽ കാണാൻ പോയപ്പോൾ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വിമുക്ത കേന്ദ്രങ്ങളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും പലരും അത് പരിഗണിക്കാതെ പ്ലാസ്റ്റിക് ഉപയോ ഭക്ഷണങ്ങൾ പൊതിഞ്ഞുകൊണ്ടുപോവുകയും അ പ ശേഷം പ്ലാസ്റ്റിക് കവറുകൾ അവിടെത്തന്നെ കളഞ്ഞിട്ട് വരികയും ചെയ്യുന്നു അതേപോലെ വെള്ളത്തിൻ്റെ കുപ്പി ഇതെല്ലാം പ്ലാസ്റ്റിക് പെറ്റ് ബോട്ടിൽ എല്ലാം അവിടെത്തന്നെ കളഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ഇത് ആൾക്കാർക്ക് ഇത് എന്താണെന്ന് ഇത് പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാലിന്യത്തെ പറ്റിയുള്ള അവബോധമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് കർശനമായിട്ടുള്ള നിയമനടപടികൾ സ്വീകരിക്കുവാണെങ്കിൽ ഒരു പരിധി പൂർണമായിത്തന്നെ നമുക്ക് ഈ ട്രക്കിങ്ങ് സ്ഥലത്തെ മാലിന്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഒഴിവാക്കാൻ പറ്റും